ഇൻഷുറൻസ് പോളിസികൾ എടുക്കാറുണ്ട് അതിപ്പോൾ ലൈഫ് ഇൻഷുറൻസുകളുണ്ട് അതായത് ജീവനും സ്വത്തിനും ഒക്കെ അവകാശപ്പെട്ട പോളിസികൾ ഇപ്പോൾ ലഭ്യമാണ് പോളിസി ഏജൻറ്റുമാർ നമുക്ക് അതിലെ വ്യവസ്ഥകൾ മാതൃഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ വ്യക്തമായി വിവരിച്ചു തരാറ് കഴിവതും ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള പോളിസിയിലെ വ്യവസ്ഥകൾ എത്രത്തോളം